ഞാൻ മേടിച്ച ഉൽപ്പന്നം ഐ ഫോൺ തേർട്ടി പ്രോ ആണ് ഇത് ഞാൻ മൈ ജി യിൽ നിന്നാണ് വാങ്ങിയത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ട്ടപ്പെട്ടു കാരണം ഫൈവ് ജി ബി യുണ്ട് ഇതിന് ക്യാമറയുടെ നല്ല ക്യാരിറ്റി ഉണ്ട് ഫോർ ക്യാമറയോളം വരുന്നുണ്ട് നല്ല നല്ല ക്ലാരിറ്റീൽ ആയിട്ടാണ് ക്യാമറ കിട്ടുന്നത് പിന്നേ ഫോട്ടോസെക്കെ എടുത്ത ഒറിജിനൽ പോലെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നു പിന്നെ ചാർജ് ഒരുപാട് നേരം നിൽക്കുന്നു കുറച്ച് കു അര മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെയിത് മൊബൈൽ വാങ്ങിയപ്പം ഇതിൻ്റെ കൂടെ സ്യുട്ടായിട്ടുള്ള കെയ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ട്ടപ്പെട്ടു നല്ലെയൊരു ഐ ഫോണാണ് ഞാൻ മേടിച്ചിരുന്നതെന്ന് വിശ്വസിക്കുന്നു